പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച്